വിത്തുകളിൽ നിന്നും വെട്ടിയെടുത്ത ചെടികളിൽ കഷ്ണങ്ങളിൽ നിന്നു പ്രചലനം ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊരിക്കലും വിജയിച്ചിട്ടില്ല ഈ പ്രക്രിയയിലെന്താണ് പഠിച്ചിട്ടുള്ളതെന്നു വെച്ചാൽ ബഡിംഗാണ് ഇത് ഇത് ഉദ്ദേശിക്കുന്നത് പക്ഷെ നല്ല കാര്യമാണെന്നാണ് എൻ്റഭിപ്രായം കാരണം നമുക്ക് പുതിയ പുതിയ ചെടികളുണ്ടാക്കി തുടങ്ങാം പക്ഷെ എല്ലാവർക്കിത് വിജയിക്കണമെന്നില്ല അപ്പോൾ എ എൻ്റഭിപ്രായത്തിൽ നമ്മൾ കാർഷിക മേഖല ഇതിനെ കുറിച്ചൊരു ബോധവത്ക്കരണ ക്ലാസുകൾ നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാകും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഈ പ്രക്രിയയിൽ നിന്നാണ് ഈ പ്രക്രിയയിൽ നിന്ന് പുതിയ പുതിയ ചെടികൾ എങ്ങനെ ഉത്പദിപ്പിക്കാമെന്നും കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ബോധവത്ക്കരണ ക്ലാസുകൾ കൃഷി മേഖല നടത്തിയാലിതിന് ഉപകാരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായതിപ്പോൾ ഫലങ്ങളുള്ള ഇപ്പോൾ കുടപ്പുളി അതുപോലെ തന്നെ അങ്ങനെയുള്ള നമുക്ക് വാണിജ്യ മേഖലയിൽ നല്ല കാര്യമുള്ള പ്രജനനം കൂടുതൽ കുണ്ട് നല്ല കാർഷിക മേഖലയിൽ നല്ല ലാഭമുള്ള വിഹിതങ്ങൾ അതായത് നല്ല ലാഭമുള്ള ഫലങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല കാര്യമാണ് കാരണം നമുക്കധികം പൈസ ചെലവ് ഇതിന് വരുന്നില്ല പിന്നെ പഴയ ചെടികളൊന്നും നമ്മൾ കളയണ്ട കാരണം പുതിയ അതിൽ നിന്നും പഴയ കഷ്ണങ്ങൾ നമുക്ക് വെട്ടിയെടുത്തു പുതിയ ചെടികളുണ്ടാകുന്നത് മൂലം പഴയതിനെയൊന്നും നശിപ്പിക്കാതെ തന്നെ പുതിയ കാര്യങ്ങൾ നമ്മളുൾപ്പെടുത്തി ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതനുസരിച്ച് നമുക്ക് കാർഷിക മേഖലയിൽ ഇതിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധവാന്മാരല്ല ആർക്കും കുറേ പേർക്കൊന്നും ഇതിനെ കുറിച്ച് യാതൊരറിവും ഇല്ല അതു പക്ഷെ അതു ചെയ്യാനുള്ള ടെക്നിക്കുകളുണ്ട് അത് സ സാധാരണയൊരു ചെടിയിൽ കൂടി മറ്റേ തണ്ട് വെച്ച് കെട്ടി ത് തന്നെ അല്ല അത് ചെയ്യാനായിട്ടൊരു പ്രക്രിയയുണ്ട് ആ പ്രക്രിയയെ കുറിച്ച് ജനങ്ങൾക്കറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്തിട്ടുപകാരമുള്ളൂ അപ്പം ദ് ന്ന കാർഷിക മേഖലയിൽ ധാരാളം പൈസ കിട്ടുന്ന ലാഭകരമായ പൈസ കിട്ടുന്ന നല്ല മൂല്യങ്ങളുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരപ്പെടുമെന്നാണ് എൻ്റൊരു വിശ്വാസം അത് ചെയ്യുകയാണെങ്കിൽ നമുക്കാദ്യം തന്നെ ബോധവൽക്കരണ ക്ല ക്ലാസ് കൊടുത്താൽ ഈ പ്രക്രിയയിൽ കൂടി ധാരാളം ചെടികളും ഫലങ്ങളും നമുക്കുത്പാദിപ്പിക്കാം അതനുസരിച്ച് നമ്മുടെ കാർഷിക മേഖല മെച്ചപ്പെടും സാമ്പത്തികമായും വാണിജ്യപരമായും അങ്ങനെ എല്ലാ വീടുകളിലും ഇതു ചെയ്തു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കൊരു ഉപകാരപ്പെടും ഈ സാധനങ്ങൾ നമ്മളെ മാർക്കറ്റിലെത്തി അന്യ രാജ്യങ്ങൾക്ക് കയറ്റി അയച്ചാൽ നമ്മുടെ സാമ്പത്തിക മേഖല തന്നെ രക്ഷപ്പെടുന്നതാണ് ഇതിനെ കുറിച്ചെൻ്റഭിപ്രായം